ഞങ്ങളുടെ ഗ്രാമങ്ങളിൽ തുറസായ സ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം സാധാരണമാണ് ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് പുരുഷന്മാർ ഒരു ശ്രദ്ധയും ഇല്ലാതെ പല സ്ഥലങ്ങളിൽ ആയിട്ട് മലംമൂത്ര വിസർജനം നടത്തുന്നതായി കാണപ്പെടാറുണ്ട് ആളുകൾ കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള വൃദ്ധരായിട്ടുള്ള ആളുകൾ ഉണ്ട് എന്ന് പോലും കണക്കിൽ എടുത്ത് കണക്കിൽ എടുക്കാതെ കൂടുതലും മധ്യവയസ്കരായിട്ടുള്ള പുരുഷന്മാരാണ് ഇത്തരത്തിൽ പെരുമാറുന്നത് സമൂഹത്തിൽ ഇന്നും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇത്ര ഏറെ പുരോഗമനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിലും ഇന്ന് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വളരെ സുലഭമായിട്ട് നമ്മുടെ നാടുകളിൽ കാണുന്നുണ്ട് എന്ന് പറയുന്നത് ഒട്ടും തന്നെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത് ഒട്ടും നല്ലതല്ല നമ്മുടെ തന്നെ നമ്മുടെ തന്നെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ ചുറ്റുമുള്ളവരുടെ ആരോഗ്യത്തിനും ജീവിത രീതികൾക്കും ഒന്നും ഒട്ടും തന്നെ നല്ലൊരു കാര്യമല്ല ഇത്തരത്തിൽ ഗ്രാമങ്ങളിൽ തുറസായ സ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം നടത്തുന്നത് കു കുട്ടികളുടെയും മുതിർന്നവർടെയും ഒക്കെ ആരോഗ്യത്തെയും പല രീതിയിൽ അത് ബാധിക്കുന്നു അതുപോലെ തന്നെ ആ ഒരു മേഖലയിലുള്ള കുടിവെള്ളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ ഒക്കെ പ്രത്യേകിച്ച് ഈ തോടുകൾ അരുവികൾ അത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ജലത്തിൻ്റെ സം ജലം ജലം വിഭവങ്ങളെ കുളിക്കാൻ തുണി അലക്കാൻ അതുപോലെ തന്നെ വീട്ടാവശ്യങ്ങൾക്ക് ഒക്കെ തന്നെ ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യം ഇങ്ങനെയൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഗ്രാമത്തിൽ തുറസായ സ്ഥലങ്ങളിൽ അതുപോലെ എന്താ പറയാ തോടിൻ്റെ കരയിലൊക്കെ ആയിട്ട് ഇങ്ങനെ മലമൂത്ര വിസർജനം നടത്തുന്നതിലൂടെ ഈ വെള്ളത്തിനോ വെള്ളത്തിലേക്ക് ഒക്കെ ഇത് പടരാനും ഇത് പല ഭവനങ്ങളിലേക്ക് പല ആവശ്യങ്ങൾക്കായിട്ട് എടുക്കുന്ന വെള്ളം ആണിത് അപ്പം ഇതിലേക്ക് ഇത് വ്യാപിക്കാനും ഇതി തുടർന്ന് ഒട്ടനവധി രോഗങ്ങൾ പകർച്ച വ്യാധികൾ പടർന്ന് പിടിക്കാനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ട് അപ്പോൾ ഈ തുറസായ സ്ഥലങ്ങളിൽ ഇങ്ങനെ മൂത്രവിസർജനം ഇത് വളരെ സാധാരണമാണ് എന്നാൽ അത് ഒട്ടും നമ്മുടെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതിക്ക് ഒന്നും ഒട്ടും തന്നെ നല്ലതല്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഇതിന് ദോഷങ്ങൾ പല രീതിയിൽ ഉണ്ട് പല തരത്തിലുള്ള അസുഖങ്ങൾ പകരാനും അത് പടർന്ന് പല ആളുകളിലേക്ക് എത്താനും ഒരു ഗ്രാമം തന്നെ മുഴുവൻ അസുഖത്തിൻ്റെ പിടിയിലാവാനും ഒക്കെ ഇത്തരത്തിലുള്ള നമ്മുടെ ഏറ്റവും നിസാരമായിട്ടുള്ള ഈ അശ്രദ്ധയിൽ നിന്ന് ഇത് വഴി ഒരുക്കുന്ന കാര്യങ്ങളാണ് അപ്പം ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരു മോചനം ഇതിൽ ഇതിൽ നിന്ന് ഇതിനൊരു പരിഹാരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പൊതു സ്ഥലങ്ങളിൽ ശു ശുചിമുറികൾ സ്ഥാപിക്കുക എന്നുള്ളത് മാത്രമാണ് പക്ഷേ എന്നാലും എത്ര അധികം ശുചിമുറികളും ശൗചാലയങ്ങളും ഒക്കെ തന്നെ പൊതുവായി സ്ഥാപിച്ചു എന്ന് പറഞ്ഞാൽ പോലും ചില ആളുകൾ അതൊന്നും വകവെയ്ക്കാതെ വളരെ അലസമായിട്ട് ഗ്രാമങ്ങളിൽ തുറസായ സ്ഥലങ്ങളിൽ ഒക്കെ തന്നെ ഇത്തരത്തിൽ മലമൂത്ര വിസർജനം നടത്തുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറുണ്ട് അപ്പോൾ ഒരു വരുതിയിൽ കൂടുതൽ ഇതിൻ്റെ അകത്ത് മറ്റുള്ളവർക്ക് ഒന്നും ചെയ്യാനില്ല നമ്മൾ തന്നെ നമ്മുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുക നമ്മളുടെ ഈ ഒരു ഹീനമായ പ്രവർത്തിയിൽ നിന്ന് മറ്റുള്ളവർക്ക് എത്രത്തോളം അത് ബാധിക്കും മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ നമ്മുടെ സമൂഹത്തിലുള്ള നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ കുറിച്ച് കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അതു മാത്രമല്ല അസുഖങ്ങൾ പടർന്ന് പന്തലിച്ചാൽ അത് നമ്മളെ ഒഴിവാക്കി നമുക്ക് അതിൽ നിന്ന് ഒഴിവായി ഒരു രക്ഷപ്പെട്ട് നിൽക്കാൻ പറ്റില്ല അത് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ജീവിതത്തെയും ജീവനെയും ഒക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ള തിരിച്ചറിവ് മനുഷ്യന് ഇനിയും വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ അതുവരെ വളരെ അത്ഭുത അത്ഭുതവാഹമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒക്കെ തിരിച്ചറയുക ഇത്തരത്തിൽ നടക്കുന്ന സംഭവങ്ങൾക്ക് എതിരെ പ്രതികരിക്കുക ഇതൊക്കെ വളരെ അധികം അത്യന്താപേക്ഷിതമായിട്ട് ഉള്ളൊരു കാര്യം തന്നെയാണ് നമ്മുടെ ചുറ്റുപാടും മലിനമാക്കാതെ സുരക്ഷിതമായിട്ട് വെക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്ത്വമാണ് വേറെ ആരും അതിന് വേണ്ടീട്ട് ഒന്നും ചെയ്യില്ല നമ്മൾ നമ്മുടെ ചുറ്റുപാടും സുരിക്ഷിതമായിട്ട് വെച്ചാൽ നമുക്ക് ആരോഗ്യപ്രദമായിട്ട് ഉള്ളൊരു ഭാവി ഉണ്ടാവും ആരോഗ്യപ്രദമായിട്ട് ഉള്ളൊരു കുട്ടികൾ ഉണ്ടാവും ഒട്ടനവധി രോഗങ്ങളിൽ നിന്ന് നമുക്ക് നമ്മളെ തന്നെ രക്ഷിക്കാൻ സാധിക്കും